ഇപ്പോൾ നർത്തനത്തിൽ നല്ല രീതിയിലുള്ള മെയ് വഴക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള പ്രാക്റ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളു ഇപ്പോൾ പല തരത്തിലുള്ള ആ ഡാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്നുള്ള പല രീതിയിലുള്ള ഡാ ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് അപ്പം നമ്മൾ കൂടുതലായിട്ടും എന്താ പറയുക ഇപ്പം ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെ പല രീതിയിൽ അതായത് അങ്ങനെയുള്ള ഡാൻസുകളൊക്കെ നമുക്ക് ഭയങ്കര പാടായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചിലപ്പം നമ്മളുടെ ശരീരം ചിലപ്പോൾ അതിനനുസരിച്ച് വഴങ്ങില്ല അപ്പം നമ്മൾ മെയ്നായിട്ട് പ്രാക്റ്റീസും കാര്യങ്ങളൊക്കെ ഏത് നേരവും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എന്നും നമ്മൾ പല അതായത് പല പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കളിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മെയ്യും അതെല്ലാം വഴങ്ങുവോം കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം നമുക്ക് നല്ല രീതിയിലുള്ളൊരു ശീലവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുവോം ചെയ്യും നമുക്കത് ഒരു പ്രചോദനമായിട്ട് വേണ്ടി മാറുവോം ചെയ്യും അപ്പം നമ്മൾ നല്ല രീതിയിൽ പ്രാക്റ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക